അയ്യോ രണ്ടു പട്ടികളുണ്ട് എൻ്റെ വീട്ടിൽ ഒരു ലോക്കിയും ഒരു ലൂസിയും രണ്ടും നല്ല രസമാണ് ഒന്ന് ലാബും ഒരു കോം കോമ്രയിനുമാണ് രണ്ടും ഭയങ്കര കളിയും കെട്ടിയിട്ടാൽ അഴിച്ചിട്ട് ഓട്ടവും ഭംഗിയാണ് നല്ല കാണാനൊക്കെ നല്ല പട്ടികളാണ് എനിക്കിഷ്ടമാണ് ചില നേരത്തെനിക്ക് ദേഷ്യം വരും അതിൻ്റടുത്ത് എന്നുവെച്ചാൽ എവിടെയെങ്കിലും ചെന്നു മറ്റു പട്ടികളുടെ അടുത്ത് കടി കൂടാനൊക്കെ പോകും അപ്പം എനിക്ക് വലിയ ദേഷ്യം വരും അല്ലെങ്കിലെനിക്ക് വലിയ ഇഷ്ടമാണ് ഞാൻ തന്നെ അതിനെ നോക്കുന്നത് പുറകെ കെട്ടിയിടും ഞാൻ നിസ്കരിക്കണതു കൊണ്ട് അതിനെ തൊടാനൊന്നും ഞാനങ്ങനെ പോകില്ല അതു കൊണ്ട് അതിൻ്റെ അടുത്തു ദേഷ്യമാണ് എന്നെത്തന്നെ നോക്കും ഫുഡ് വേണമെന്നുള്ള സമയത്ത് ഇങ്ങനെ വന്ന് എന്നെ നോക്കും ആഹാരം വേണോ മോൾക്ക് വിശക്കുന്നോയെന്നു ചോദിച്ചാൽ മ്മ് നക്കിയിട്ട് ഏ ഏ ഏന്നൊക്കെ കാണിക്കും നല്ല ഒരു ലാബാണെങ്കിൽ വളരെ ഇഷ്ടമാണ് നല്ല പട്ടിയാണ് ആൾക്കാരുടെ അടുത്തൊക്കെ നല്ല സ്നേഹത്തോടെ പെരുമാറും ഞങ്ങടെ കുട്ടികളൊക്കെ അവിടെ വരുമ്പഴത്തേക്ക് അവിടെ അടുത്തൊരു ഫുട്ബോൾ ഗ്രൗണ്ടുണ്ട് അവിടെ വരുന്നോരൊക്കെ ഇവിടെ വന്ന് എൻ്റെ പട്ടികളെ കളിപ്പിക്കും വളരെ ഇഷ്ടമാണ് എൻ്റെ രണ്ടു മക്കളാണ് അതിനെ വളർത്തുന്നത് അതിനുവേണ്ടിയിട്ട് ഒരു വീടു വെച്ച് പ്രത്യേകിച്ച് രണ്ടു പട്ടികൾക്കു വേണ്ടി വീടു വെച്ച് അവർ രണ്ടു പേരും നല്ല സ്നേഹത്തോടെയാണ് പട്ടികളെ നോക്കുന്നത് പപ്പയ്ക്ക് ഇഷ്ടമാണ് പക്ഷേ നിസ്കരിക്കണതൊക്കെ കൊണ്ട് ഒന്നകറ്റി നിർത്തും അങ്ങനെ ഞാൻ ഇടക്കിടയ്ക്ക് മക്കളുടെ അടുത്തു വഴക്കു കൂടാറുണ്ട് പട്ടികളെ എന്തിന് ഇവിടെ വേണ്ട മോനെന്നൊക്കെ പറഞ്ഞിട്ട് അവന്മാർ കേൾക്കുന്നില്ല അവന്മാർക്കു വളരെ ഇഷ്ടമാണ് പട്ടിയെ അവന്മാർ സ്നേഹിക്കണ കാണുമ്പം എനിക്കും ഇഷ്ടമാണ് അങ്ങനെ നല്ല നല്ല ഇതാണ് സന്തോഷമാണ് പട്ടികളെ കൊണ്ട് ഞങ്ങൾക്കു വളരെ ഇഷ്ടമാണ് എനിക്ക് അങ്ങനെ പിന്നെ പൂച്ചകൾ കുറെ കുട്ടി പൂച്ചകളെ ഇവരെ കാണാൻ വരും ആദ്യമാദ്യം പൂച്ചകൾ പേടിച്ചോടുമായിരുന്നു പിന്നേടായപ്പോഴത്തേക്ക് പൂച്ചകൾ ഇവരെടുത്തങ്ങ് വലിയ ഇഷ്ടമായി അപ്പം എല്ലാരെയും കൂടെ അവരെ എല്ലാരെയും കൂടെ ഞാൻ വളർത്തേണ് അവരുടെ എല്ലാരുടെയും അമ്മയാണ് ഞാൻ വളരെ ഇഷ്ടമാണ് കാരണം അവർ സന്തോഷമായിട്ടു നല്ല സന്തോഷമാണ് അങ്ങനെ പിന്നെ എന്ത് പറയാനാ ഞങ്ങളുടെ ലൂസിയാണെങ്കിൽ ലൂസി അതു പറഞ്ഞതിൻ്റെ കൂട്ടത്തിലുള്ള ഒരു പട്ടിക്കുട്ടി അതു ലോക്കി ഇത് ലൂസി ലൂസി ആണെങ്കിൽ ഇടയ്ക്കിടക്ക് അയൽപക്കക്കാരൊക്കെ നടന്നു പോകുമ്പോഴത്തേക്കും ഭയങ്കര കൊരയലാണ് ദേഷ്യം പോലെ പക്ഷേ ഇവനങ്ങനെയല്ല ഇവൻ ആരെ കണ്ടാലും കുരയ്ക്കില്ല വാലാട്ടി വാലാട്ടി മിണ്ടാതെ നിൽക്കും അവൻ കാണാൻ നല്ല വലിയൊരു സൈസാണ് പക്ഷേ കണ്ടുകഴിഞ്ഞാൽ ഒരു പാവക്കുട്ടികളുടെ സ്വഭാവം ഇവൾ ഇച്ചിരിയെ ഉള്ളു കാണാനായിട്ട് പക്ഷേ ഇവൾ ഭയങ്കര വില്ലത്തിയാണ് ഭയങ്കര കൊരയലാണ് ആൾക്കാരെ കണ്ടുകഴിഞ്ഞാൽ ഞങ്ങളെ കാണുമ്പം മാത്രം കൊരയ്ക്കില്ല ബാക്കി എല്ലാവരെയും കണ്ട കുരയ്ക്കും അപ്പുറത്ത് അനിയത്തിയുടെ വീട്ടിൽ ചെന്ന് അപ്പിയിട്ട് വെയ്ക്കും അങ്ങനെയൊക്കെയുള്ള ഒരു കുണ്ടണിയാണ് അവൾ നല്ല രസം അങ്ങനെ പിന്നെ ഞാൻ പിന്നെ അതു പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്തെങ്കിലും വീട്ടിൽ ഉണ്ടാക്കി ആ സാധനം അവർക്കു തന്നില്ലെങ്കിൽ എൻ്റെടുത്ത് ഭയങ്കര ദേഷ്യമാണ് എന്നെ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ നിൽക്കും കൊടുത്താൽ നല്ല സന്തോഷമാണ് എന്തുണ്ടാക്കിയാലും അവർക്കു വേണം ഞാൻ കൊടുക്കണം അങ്ങനെ ഒരു നല്ല അങ്ങനെയാണ്